റേഡിയോയിൽ വാർത്തകൾ കേൾക്കാൻ എനിക്കിഷ്ടവാണ് ഞാൻ റേഡിയോയിലല്ല കേൾക്കുന്നത് ടിവിയിലാണ് റിപ്പോർട്ടർ കാണും പിന്നെ ഞാൻ ട്വൻറ്റി ഫോർ കാണും ഏഷ്യാനെറ്റ് ന്യൂസ് ഇഷ്ടമാണ് അത് രണ്ടും അത് മൂന്നും ശരിക്കനും നോക്കുന്നത് പിന്നെ വേറെ എല്ലാം മാറിമാറി ഒന്ന് നോക്കുന്നതേ ഉള്ളു ഏത് വാർത്തയാണ് നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നത് വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്നത് ലോകത്തിലെ എല്ലാ വിവരങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ലോകത്തിലെ ഓരോ സംഭവങ്ങൾ അങ്ങനെ ഇതെല്ലാം കേൾക്കാൻ നല്ല നല്ല കേസുകൾ പിന്നെ ഓരോ ഇതും എല്ലാം എല്ലാം വാർത്തകൾ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലൊ എല്ലാ വാർത്തയും കേൾക്കാൻ ഇഷ്ടമാണ് സ്പോർട്സ് കേൾക്കാൻ ഇഷ്ടമാണ് അങ്ങനെ എല്ലാ വാർത്തയും കേൾക്കാൻ ഇഷ്ടമാണ് കൂടുതലുവായിട്ട് കാണുന്നത് ട്വൻറ്റി ഫോർ ഏഷ്യാനെറ്റ് പിന്നെ ഇപ്പം പുതിയതായിട്ട് വന്ന റിപ്പോർട്ടർ അതാണ് അതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് റേഡിയോ ഇല്ലാത്തത് കൊണ്ട് റേഡിയോ വാർത്ത കേൾക്കാറില്ല ടിവിയിലാണ് വാർത്ത കേൾക്കുന്നത്

കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അതുകൊണ്ടാണ് വാർത്ത കേൾക്കാൻ നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്നും നമ്മൾ അറിയണമെങ്കിൽ വാർത്ത തന്നെ കേൾക്കണം പിന്നെ മഴയും കാറ്റും അങ്ങനെ അതൊക്കെ പ്രാദേശിക അങ്ങനെ ഉള്ള കാര്യങ്ങളും കേൾക്കാനും വാർത്തകൾ ഇടുക്കി വിഷൻ നോക്കാറുണ്ട് ഇടുക്കി വിഷൻ ഞങ്ങൾ കേബിൾ ടി വി ആയത് കൊണ്ട് ഇടുക്കി വിഷൻ ശരിക്കനും വരാറില്ല എന്നാലും കുറച്ചൊക്കെ വരുന്ന ഇടുക്കി വിഷൻ നമ്മുടെ പ്രദേശത്തെ വാർത്തകൾ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് അതും നമ്മൾ ഇടുക്കി വിഷൻ വരുമ്പോൾ നമ്മൾ കുറെ ഒക്കെ ശ്രദ്ധിക്കും കൂടുതൽ ആയിട്ടും നമുക്ക് കിട്ടുന്നത് റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ഏഷ്യാനെറ്റ് ന്യൂസുമായത് കൊണ്ട് അത് കേൾക്കാൻ ആഗ്ര ഇഷ്ടപ്പെടുന്നു അത്രയൊക്കെയാണ് വാർത്തയെ പറ്റി പറയാനുള്ളത് എല്ലാ വാർത്തകളും നല്ലതാണ് എല്ലാ ചാനലുകളും നല്ലതാണ് എല്ലാം ഒരേപോലെയൊക്കെയാണ് പറയുന്നത് പിന്നെ ഓരോ എന്താ പറയുന്നത് പാർട്ടി അടിസ്ഥാനത്തിലുള്ള വാർത്തകളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പാർട്ടി വലിയ ഇഷ്ടം ഒന്നും ഇല്ല അതുകൊണ്ട് പാർട്ടിപരമായിട്ട് വരുമ്പോൾ ചാനൽ മാറ്റിയിടും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ലോകത്തിലെ ഓരോ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അത്രെയും ഒക്കെ വാർത്തയെ പറ്റി പറയാൻ ഉള്ളു വാർത്തയെ പറ്റി ഇതുള്ളു പിന്നെ പത്രത്തിലൂടെ ഒക്കെ നമ്മൾ കുറേ വാർത്ത കേൾക്കുന്നുണ്ടല്ലൊ അത് ഒന്നുംകൂടി ചാനലിൽ കൂടെ കാണും അപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഈ ചാനലിൽ കൂടെ ഒക്കെ ആകുമ്പം മറ്റേ പേപ്പറിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഉള്ളൂ ഇത് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ചാനലുകൾ വഴി വാർത്ത കേൾക്കുന്നത് അതാണ് നമുക്ക് കാണുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം അറിവും അങ്ങനെ കൂടുതൽ അറിവ് നമുക്ക് കിട്ടും പിന്നെ പത്രം കൂടുതൽ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് എവിടെയേലും ഒക്കെ ഇരിക്കുമ്പോൾ ആരുടെയും ശല്യമൊന്നും ഇല്ലാതെ വലിയ ഇതൊന്നുമില്ലാതെ നമുക്ക് കാണുന്നത് കൊണ്ട് പത്രം ഇഷ്ടപ്പെടുന്നു അതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ ലോകത്തിലേക്കായത് കൊണ്ട് കൂടുതലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചാനലുകളെ ആശ്രയിക്കുന്നു അത്രേയൊക്കെ എനിക്ക് പറയാനുള്ളൂ വാർത്തകളെപ്പറ്റി ഇത് നിൽക്കുന്നിൽ നിർത്തിക്കേ